എനിക്ക് ഏറ്റവും കൂടുതൽ സന്ദർശിക്കാൻ ആഗ്രഹം ഉള്ളത് താജ് മഹൽ ആണ് താജ് മഹലിൽ എപ്പോഴും പോവാനാണ് തോന്നുന്നത് അവിടെ ഷാജഹാൻ പണിതു വച്ചിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു രീതിയിലാണ് പണിതു വച്ചേക്കുന്നത് അത് കാണാൻ ഒത്തിരി അധികം ആൾക്കാർ അവിടെ എത്തുന്നു അവരുടെ കൂട്ടത്തിൽ ഒരു അംഗമാകാൻ വേണ്ടിയും പിന്നെ അവിടെ ആസ്വദിക്കാനും അതു കണ്ട് ആസ്വദിക്കാനും ഫുൾ മാർബിളും കൊണ്ട് ചെയ്തൊരു ഇതാണ് അതൊരു നദിയുടെ തീരത്താണ് അത് കൂടുതലും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന് ഒത്തിരി ഏറെ പ്രാധാന്യം കൊടുത്തും എനിക്ക് അതിനോട് അത്ര താൽപര്യം പോകാൻ ഒരു ഇതൊക്കെ തോന്നുന്നതും അതു കൊണ്ടാണ്